പാചകം ചെയ്തിരിക്കാൻ ഒരു ലിമിറ്റൊണ്ട് നമുക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്കാണേലും തോന്നുന്നില്ല നമുക്ക് ഭക്ഷണങ്ങൾ കഴിക്കാൻ ഇഷ്ടമുള്ള സമയം നമ്മളതിണ്ടാക്കുകയാണ് പുതിയ കാര്യങ്ങൾ യൂട്യൂബിലെല്ലാം അടിച്ചുനോക്കി നമ്മളുണ്ടാക്കുമ്പോൾ അതിൻ്റെ വിധി നല്ലതാവണമെന്നുള്ള ഒരാഗ്രഹത്താലാണ് നമ്മളത് കുക്ക് ചെയ്യുന്നത് കുക്കിംഗ് വളരേ അധികം ഇഷ്ടമുള്ള കുറെപേരെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നാൽ ഇഷ്ടമല്ലാത്ത കിച്ചണിൻ്റെ അടുത്തേക്ക് പോവാത്തവരെയും ഞാൻ കണ്ടിട്ടുണ്ട് അത് ഓരോ അവരുടെ ഡെയിലി റൊട്ടീൻസ് കാരണമാണ് അത് നമ്മള് അത്ര നല്ല കാര്യമല്ല കാരണം നമുക്കിഷ്ടമുള്ള ഒരു ഭക്ഷണം നമ്മള് സ്വന്തമായി ഉണ്ടാക്കി നമ്മൾ കഴിക്കുമ്പോഴുള്ള നമ്മുടെ അച്ചീവ്മെൻ്റാണത് ജോലികളിൽ അച്ചീവ്മെൻറ് കിട്ടുന്നപോലത്തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തിലും ഭക്ഷണം നല്ല രീതിയിൽ ടേസ്റ്റായിട്ട് കിട്ടുമ്പം അതിനനുസരിച്ച് അച്ചീവ്മെൻറ് നമുക്കുണ്ടാവൂലേ അത് നമ്മള് വേറൊരാൾക്ക് ഷെയറ് ചെയ്യുമ്പോൾ അതിലേറെ അച്ചീവ്മെൻ്റുണ്ടാകും ഇന്നെനിക്ക് അത് ഞാനൊരുപക്ഷേ ഉണ്ടാക്കിയിട്ടത് വളരെയധികം നല്ല രീതിയിൽ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു വിധീന്നു പറയുന്നത് നോ എന്ന അർത്ഥത്തിലേക്കും ടേസ്റ്റില്ലാന്ന് പറയുമ്പം നോ എന്നൊരർത്ഥത്തിലേക്കാണ് വരുന്നത് അപ്പം നമ്മള് തകർന്ന് പോകൂല നമ്മള് വേറൊരു ഡിഷുണ്ടാക്കുംന്നാണ് ഞാനൊക്കെയാണെങ്കില് സ്നാക്സ് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരാളാണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നൊരാൾക്കാരാണ് വീട്ടിലുള്ളത് അപ്പം നമ്മള് പുതിയ പുതിയ കാര്യങ്ങള് വരുന്നതനുസരിച്ച് ഞാനതുണ്ടാക്കി വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ കൊടുത്ത് നല്ല രീതിയ്ക്ക് തന്നെ കൊണ്ടുപോവുന്നതാണ്